വീട് ഇപ്പൊൾ നമ്മള് സാധാരണയായിട്ട് അലങ്കരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ നമ്മള് ബോട്ടിലാർട്ട് പോലുള്ളവയൊക്കെ വച്ചിട്ടാണ് വീട് സാധാരണയായിട്ട് അലങ്കരിക്കാറ് ബോട്ടിലാർട്ട് പിന്നെ ചുവരുകളില് നമ്മള് ചിത്രം വരച്ചിട്ട് കളർ ചെയ്യുക അങ്ങനെത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ ഡ്രീംക്യാച്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ വീടുകളിൽ കെട്ടിത്തൂക്കുക പിന്നെ പേ കളർ പേപ്പറ് പോലുള്ള സാധനം കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പു പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു അതൊക്കെ ഭിത്തികളിൽക്കൂടെയൊക്കെ തൂക്കുക അങ്ങനെത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും റൂം അലങ്കരിക്കാനൊക്കെയായിട്ട് ഉപയോഗിക്കാറ് പിന്നെ ബോട്ടിലാർട്ട് ആണ് മെയ്നായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ബോട്ടിലിൽ തന്നെ ബിയർ ബോട്ടിൽ അല്ലാത്ത ബോട്ടിലികളൊക്കെ യൂസ് ചെയ്ത് അതിനകത്തു പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ കൂടുതലും വീട് ഭംഗി മോടികൂട്ടുന്നത് പിന്നെ ഭിത്തികളിലൂടെയുള്ള വരയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മള് വരച്ച് നല്ല കിളികളും പുഷ്പങ്ങളൊക്കെ വരച്ച് അതില് പെയിന്റൊക്കെ ചെയ്താണ് നമ്മള് വീട് സാധാരണ ആ വൃത്തി എന്താ പറയുക മോടികൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നത്